വയനാടൻ മേഖലകളിൽ നീലഗിരി എസ്റ്റേറ്റിൻ്റെ ആ ഭാഗങ്ങളിൽ ഞാനൊരു പ്രാവശ്യം പോയ സമയത്ത് കണ്ട ഒരു കൊക്ക് താനെ പക്ഷേ അത് വളരെ വിചിത്രമായിട്ടും അപൂർവ്വമായിട്ടും എനിക്ക് തോന്നുകയും പക്ഷേ അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു കൊക്കിൻ്റെ രൂപമാണ് കൊക്കിനെ പോലെയൊക്കെ ഇരിക്കും അതിൻ്റെ പേര് എന്താണെന്നോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് പിന്നെ ഞാൻ പഠിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല ഞാൻ അന്ന് കണ്ടു എനിക്ക് വളരെ അപൂർവ്വമായിട്ടും ഒരു അതിശയമായിട്ടും തോന്നി സാദാ കൊക്കിൻ്റെ അതിലൊരു കാലിനൊക്കെ നല്ല നീളമുണ്ട് നല്ല നീളമുണ്ട് അത് ഇതുപോലെ കൊത്തി നീണ്ട കൊക്കുകളും ഒക്കെയായിട്ട് ഉള്ള ഒരു ഒരു അപൂർവ്വയിനം പക്ഷി ആയിട്ടെനിക്ക് തോന്നി പക്ഷേ അതിൻ്റെ പേരോ അതിനെക്കുറിച്ചോ ഉള്ള ഇത് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ